ടീവിൽ വാർത്തകൾ ഒക്കെ കാണാറുണ്ട് കുടുതലായിട്ടും ട്വന്റി ഫോർ ന്യൂസിലെ ശ്രീകണ്ഠനായരുടെ ന്യൂസ്സാണ് കാണാറ് ഇപ്പൊത്തെ ഒരിത് വെച്ചിട്ട് ന്യൂസിൽ കൂടുതലായിട്ടും കാണുന്നത് മഴക്കെടുതിയുടെ ഒരു വിളയാട്ടമാണ് കൂടുതലായിട്ടും നല്ല മഴ അതിശക്തമായ മഴയാണ് അതുമൂലം ഒരുപാട് ജനങ്ങൾക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് ഇപ്പൊത്തെ ജനങ്ങളൊക്കെ ദുരിതശോസ ക്യാമ്പിലാണ് സ്റ്റേയ് ചെയ്യുന്നത് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് അതുപോലതന്നെ ഒരുപാട് വ്യക്തികളുടെ വീടുകൾ ഒലിച്ചുപോകുകയും അതുമൂലം കുറെ ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്യുനുണ്ട് ഈ മഴയെന്നു പറഞ്ഞാൽ അതിശക്തമായ മഴയില് ഒരുപാട് വ്യക്തികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് ണ്ട് കൂടുതൽപേരും അത് ആറിയുന്നില്ല അതുപോലെതന്നെ ഈ അടുത്തുള്ള വാർത്തയാണ് ഒരു നാല് വയസുള്ള കുട്ടിയും തൻ്റെ അമ്മയുംകൂടെ പുഴയിലേക്ക് എടുത്ത് ചാടുന്നത് ആ കുട്ടിനെ ഇപ്പോഴും കിട്ടിയിട്ടില്ല ആ കുട്ടിക്കുവേണ്ടി തിരച്ചിലിലാണ് ഇപ്പോൾ നടക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പത്തെ വാർത്താന്ന് പറയുന്നത് അതുപോലെതന്നെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് മഴമൂലം അല്ലാണ്ട് തന്നെ ഒരുപാട് അപകടങ്ങൾ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോഴുത്തെ വാർത്തയിൽ കാണാൻ കഴിയുന്നത്